ഇന്ത്യയിലെ ഒരു ഇരുപത് അല്ലെങ്കിലൊരു മുപ്പത് വർഷത്തെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ടെലിവിഷൻ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലേറ്റവും കൂടുതൽ നൃത്ത നൃത്തത്തെ ചുറ്റിപ്പറ്റിയുള്ള പരിപാടികൾ റ്റീ വി ഷോകൾ നടന്നിട്ടുള്ളത് ഉത്തരേന്ത്യയിലാണ് അതും കൂടുതലും ഹിന്ദി ഭാഷയിലാണ് നടന്നിട്ടുള്ളത് അതിപ്പം മുംബൈയൊ ഡെൽഹിയൊ ബേസ് ചെയ്തിട്ടാണ് കുടുതൽ പരിപാടികളും നടന്നിട്ടുണ്ടാകുന്നത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഡാൻസ് ഇന്ത്യ ഡാൻസ് അല്ലെങ്കിൽ ഇന്ത്യാസ് ഗോട്ട് ടാലൻ്റ് അങ്ങനെ ഒരുപാട് പ്രോഗ്രാം നച്ച് ബല്ലിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരിപാടികൾ നൃത്തത്തിന് വേണ്ടി മാത്രം ഹിന്ദി ഭാഷയിൽ നമുക്കൊരുപാട് പരിപാടികളെടുത്ത് പറയാൻ പറ്റും അതിന് ഒരുപാട് എന്താ സീസണുകൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി എല്ലാ വർഷവും ഉണ്ടാവുന്നും ഉണ്ട് ഒരുപാട് ആൾക്കാർക്കത് കാരണം ഒരു എന്താ പറയുന്നത് ഒരു ജീവിതമാർഗ്ഗം അല്ലെങ്കിലവരുടെ നൃത്തം എന്നുള്ളൊരു ആ സ്വപ്നത്തെ സാക്ഷാത്ക്കരിക്കാനൊക്കെ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുള്ള പല പല പരിപാടികളും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഹിന്ദി ഭാഷയിൽ നടക്കുന്നതുകൊണ്ടുതന്നെ ഈ ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്തിലെ ആൾക്കാരാണെങ്കിലും അവിടെ വന്ന് അവരുടെ നൃത്തരൂപത്തെ അവതരിപ്പിക്കുമ്പോൾ അതിൽ ബോളിവുഡിന്റെ ഒരു വലിയ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം തെക്കൻ തെക്കേന്ത്യേയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ തനതായ പരമ്പരാഗത കലാരൂപങ്ങളായിട്ടുള്ള ഭാരതനാട്യമൊ കുച്ചുപ്പുടിയൊ അല്ലെങ്കിൽ ആവണിയൊ മോഹിനിയാട്ടമൊ ഒക്കെ കർണാടക സംഗീതം അല്ലെങ്കിൽ ലാവനയാണെങ്കിൽ മറാഠ സംഗീതത്തിനെ അടിസ്ഥാനമാക്കി അതിൽ അവതരണം വരുന്നതുകൊണ്ട് തന്നെ അതിലത്രയും ബോളിവുഡിന്റെ സ്വാധീനം കാണാൻ സാധിക്കില്ല കാരണം കർണാടക സംഗീതത്തിനെ അത് കർണാടക സംഗീതമാണതിൽ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് പക്ഷെ ഇന്നത്തെക്കാലത്ത് ഒരു നൃത്തവും അതിനെയൊക്കെ അതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഗീതവും മിക്സ് ചെയ്ത് ഒരു ഫ്യൂഷനെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയെന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക നോർമ്മലായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഭരതനാട്യത്തിന് വളരെ വേഗത കൂടിയൊരു ബോളിവുഡ് പാട്ട് എടുക്കുകയെന്ന് പറഞ്ഞത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ അങ്ങനത്തെ പല പല ഫ്യൂഷനുകളും ഈ ബോളിവുഡ് ഇൻ സ്വാധീനം കൊണ്ടും ഈ പരിപാടികളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിപ്പം ആം ഖതക്ക് ഖതക്കോ ഒഡിസ്സിയൊ അവതരിപ്പിക്കുന്ന നർത്തകരായിക്കോട്ടെ ഭരതനാട്യം കുച്ചുപ്പുടിയൊ അവതരിപ്പിക്കുന്ന നർത്തകരായിക്കോട്ടെ ഇതിനെയെല്ലാം ബോളിവുഡ് വളരെയധികം സ്വാധീനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനോടൊപ്പം ഇഷ്ടപ്പെടുന്ന നിത്യഹരിത നൃത്തഗാനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഓരോ പതിറ്റാണ്ടിലും നമുക്ക് ഒരുപിടി പാട്ടുകളെടുത്ത് പറയാൻ സാധിക്കും അതായത് ഇപ്പം തൊണ്ണൂറുകളിൽ എമ്പതുകളിൽ ഇന്ന പാട്ടുകൾ തൊണ്ണൂറുകളിൽ ഇന്ന പാട്ടുകൾ രണ്ടായിരത്തിൽ ഇന്ന പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അത് ഓരൊ ഭാഷയിൽ ഇന്ന പാട്ടുകളെടുക്കാം അതൊക്കെ എന്താ പറയുക വളരേയധികം വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ടല്ലൊ എന്നാൽപ്പോലും കേട്ടാൽ ആരു കേട്ടാലും രണ്ട് ചുവട് വച്ചുപോകുന്ന പാട്ടുകൾ എല്ലാ ഭാഷയിലും ഉണ്ട് അതിപ്പം ഹിന്ദി ആയിക്കോട്ടെ മലയാളമായിക്കോട്ടെ തമിഴായിക്കോട്ടെ തെലുങ്കൊ കന്നഡയൊ ഏത് ഭാഷയൊ ആയിക്കോട്ടെ അതിലെല്ലാവരും ഇതിലെല്ലാത്തിലും ഭാഷ അല്ലെങ്കിൽ അറിയില്ല എങ്കിൽപ്പോലും ആൾക്കാർ നൃത്തം വച്ച് പോകുന്ന പല പാട്ടുകളും നമക്കുണ്ട്